ഞാൻ അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന അമിതേൻ്റെ പാരൻറ്റായിരുന്നു അപ്പോൾ കുട്ടീനെ നാളെ വിടൂലാന്ന് പറയാൻ വേണ്ടീട്ടായിരുന്നു അത് നാളെ എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഫാമിലീൽ വേണ്ടപ്പെട്ടൊരാൾടെ എക്സാം ആർജൻറ്റ് ആയതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ വരെ പോണ്ടൊരു ആവശ്യമുണ്ട് നാളെ എന്തായാലും വെള്ളിയാഴ്ചയല്ലെ അപ്പം രണ്ട് ദിവസം അവിടെ പോയിട്ട് വരാൻ വേണ്ടീട്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പോവുക

ആർജൻറ്റായിരുന്നു കാരണമെന്താന്ന് വെച്ച്കഴിഞ്ഞാൽ നമ്മളിപ്പം മൂന്ന് ദിവസത്തേക്ക് ഇവിടിണ്ടാവില്ല അപ്പോൾ നാളെ ശനിയാഴ്ച ആണല്ലോ മൺഡേ ലീവല്ല മൺഡേ ഞങ്ങൾ ഞങ്ങൾ സൺഡേ തന്നെ വരും സൺഡേ ഒരു രാത്രി വരും നൈറ്റ് വരും മൺഡേ ലീവില്ല ഞങ്ങൾ നാളെ മാത്രമേ ലീവെടുക്കു

എക്സാം ഫീൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എക്സാം ഫീ നമ്മൾ മൺഡേ കൊടുത്തുവിടാം എത്ര ആയിരുന്നു ഓക്കെ ഓക്കെ അത് ഞങ്ങൾ മൺഡേ കൊടുത്തു വിടാം കുട്ടീൻറ്റടുത്ത് കൊടുത്താൽ പോരെ അവൾ പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല അത്രേം അതുകൊണ്ടാ നാളെ എന്തായാലും മൺഡേ ഞാൻ എന്തായാലും കൊടുത്തുവിടാം ഓക്കെ ഓക്കെ മൺഡേ കൊടുത്തുവിടാം ഓക്കെ അത് ഞങ്ങൾ

ഓക്കെ ഓക്കെ ഞാൻ നാളെ പോയിട്ട് വരാം എന്നാൽ ഓക്കെ